ആ ഹലോ ആ ഇത് സജിയല്ലേ ആ നമ്മുടെ ആ ആ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ പെരപണി ആലോചിക്കുവാണ് അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്സ് അങ്ങനെ പല കാര്യങ്ങൾ ഒക്കെ സജിയെ ഏൽപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ ആ പ്ലാനൊക്കെയായി പ്ലാനൊക്കെയായി അപ്പോൾ സജിയത് നന്നായിട്ട് ചെയ്യുമെന്ന് എല്ലാവരും പറയുന്നു അപ്പോൾ ആ ഒരു വിശ് ആ ആ ആഹ് ഹാ എല്ലാവരും നൂറ് നൂറ് ശതമാനം നല്ലത് പറയുമ്പോൾ തന്നെ നമുക്ക് മാറ്റിചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം സജി തന്നെ ചെയ്തേരെ ആ ആ അത് മൊത്തം ആയിരത്തി എണ്ണൂറ് ആ ആ ആ നല്ല രീതിയിൽ തന്നെ ചെയ്തേക്കാം കാരണം എന്നുമെന്നും നമുക്ക് മാറ്റി മാറ്റി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പോൾ ചെയ്യുമ്പം ബേസിക്കായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തേക്കാം നല്ല വയറൊക്കെയിട്ട് നല്ല കമ്പനി സാധനങ്ങളൊക്കെയിട്ട് തന്നെ ചെയ്തേക്കാം ങാ ങാഹ് ഹാ അതെ ആ ആ വീടുകളിലൊക്കെ ആഹ് അത് തന്നെ ആ ആ ആ ആ ആ മതി മതി അത് മതി ആ അപ്പോൾ

ലൈറ്റ് ഇപ്പം പണിയുന്നതിനൊക്കെ നല്ല ഇട്ടേക്കാം ഇട്ടേക്കാം ആ ക്യാമറയിനും ഇട്ടേക്കാം ഇനി ഇപ്പോൾ കള്ളന്മാരൊക്കെ ഇങ്ങനെ ആ അതെ അഞ്ഞൂറിൻ്റെ വേണം നമുക്ക് കൗണ്ട് ചെയ്തേക്കാം കംപ്ലീറ്റ് ചെയ്തേക്കാം ഒട്ടും ബാക്കി വെച്ചേക്കണ്ട കാരണം വെച്ചാൽ പിന്നീടിത് നടക്കുകേല അപ്പം നല്ല രീതിയിൽ തന്നെ ചെയ്തു വേണം പോകാൻ ങാ അതെയതെ ആ ആ ആ നിന്ന് പോകരുത് അതെയതെ ആ ആ വേണം വേണം ആ ആ ആ ആ

അത് വേണം വേണം ആ ആ അതൊരു നിലയെ ഉള്ളു വേറെ മുന്നോട്ടിപ്പം മുന്നോട്ടിപ്പം ചെയ്യിക്കാൻ പുള്ളിക്കാരൻ പിന്നെ ഇവിടെ പിള്ളേരൊന്നുമില്ലല്ലോ എല്ലാവരും പുറത്തോട്ടൊക്കെ പോകുവല്ലേ അപ്പം പിന്നെ ഒരു നിലയുടെ ആവശ്യമേയുള്ളു ആ മുന്നോട്ട് പണിയണമെങ്കിൽ പണിയാം ആ മുന്നോട്ട് പണിയണമെങ്കിൽ പണിയാം പിന്നെ മൊത്തം കളർ ഫുൾ ആയിരിക്കണം ഇന്നത്തെ പോ ഇപ്പോഴത്തെ കാലത്ത് പെരയൊക്കെ കണ്ടല്ലോ ചുറ്റോട് ചുറ്റും ഇപ്പം ലൈറ്റെലാണ് കൂടുതൽ കാര്യങ്ങൾ പെരയുടെ ഷോ മൊത്തം വെച്ചേക്കുന്നത് ലൈറ്റെലാണ് സന്ധ്യയായാൽ പിന്നെ

ആഹ് ഹാ

ആ ആ രണ്ടരലക്ഷം ആ ഞാനും ഏതാണ്ട് അത്രയൊക്കെയാണ് പ്രതീക്ഷിച്ചത് തന്നെ അത് കുഴപ്പമില്ല ആ ആ ആ ആ അപ്പോൾ ആ ആ പിന്നെ അതോണ്ടാണല്ലോ വിളിച്ചതും എല്ലാവരും പറയുന്നുണ്ടല്ലോ നമ്മൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എല്ലാവരും ഈ ഒരു പേര് മാത്രമേ പറഞ്ഞുള്ളു അപ്പോൾ പിന്നെ നമുക്ക് റായിട്ട് എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അപ്പോൾ ഈ ആഴ്ച ഇങ്ങോട്ട് ഇറങ്ങുമോ ഓക്കേ ഓക്കേ ഓക്കേ ശരി ഓക്കേ